നമ്മള് എല്ലാ ആളുകളും നിത്യ ജീവിതത്തില് സാധനങ്ങള് വാങ്ങുന്ന ആളുകളാണ് കാരണം നമുക്കു സ്വന്തമായിട്ടു സാധനങ്ങൾ ഉൽപാദിപ്പിച്ച് അത് ഉപയോഗിക്കുക എന്നുള്ളതൊരിക്കലും സാധ്യമല്ല ഒരു മനുഷ്യനൊരിക്കലും തനിക്കാവവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉൽപാദിപ്പിച്ച് അതുപയോഗിക്കുന്ന സാഹച്യമില്ലാത്തതുകൊണ്ടുതന്നെ നമ്മള് പ്രത്യേകിച്ച് മനുഷ്യന്മാര് മൃഗങ്ങൾക്കു വിപരീതമായി സാമൂഹിക ജീവികളായതുകൊണ്ടും നമുക്ക് ഓരോ സാധനങ്ങളും കടയിൽനിന്നു വാങ്ങേണ്ടതുണ്ട് ഇപ്പോള് ഒരു രാജ്യത്തു ജീവിക്കുന്ന മനുഷ്യൻ ഒരു വ്യക്തി അല്ലെങ്കില് ആ രാജ്യത്തിൻ്റെ പൗരനെന്ന നിലയ്ക്കു നമുക്ക് ആ രാജ്യത്തിന് അതിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന്റേതായ ടാക്സുകളും മറ്റും നമ്മള് നൽകേണ്ടതുണ്ട് ഇപ്പോള് നമ്മള് വാങ്ങുന്ന ഓരോ സാധനങ്ങള്ക്കും നാം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് അതിന് അതിപ്പോള് പുതിയ മോദി ഗവൺമെൻറ് വന്നപ്പോഴുള്ള ജി എസ് ടി എന്ന പേരില് പുതിയ ടാക്സും കൂടി ഇപ്പോൾ ആഡായിട്ടുണ്ട് അപ്പോള് നമ്മള് ഈ ടാക്സും സാധനങ്ങളുമൊക്കെ ഒരു സാധനത്തിന് അടച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു വസ്തു വാങ്ങിയതിനുശേഷം നമുക്കതു തിരിച്ചുകൊടുക്കുമ്പോഴും ആ ടാക്സിൻ്റെ പൈസ അതു നമുക്കു തിരിച്ചുകിട്ടുന്നതാണ് അപ്പോഴതു പ്രത്യേകം നമ്മള് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് അത് റിട്ടേൺ ചെയുമ്പോള് ടാക്സിൻ്റെ പൈസ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലുമുണ്ടാവില്ല അപ്പോള് നമ്മള് ടാക്സ് കൊടുക്കുന്നത് സാധനം വാങ്ങുമ്പോഴാണ് അതുകൊണ്ട് തന്നെ തിരിച്ചുകൊടുക്കുമ്പോള് ടാക്സിൻ്റെ പൈസയും നമുക്ക് അതിൻ്റെ പൈസയടക്കം തിരിച്ചുകിട്ടേണ്ടതുണ്ട് ഓക്കെ